ഹലോ ഞാൻ കുറച്ചുമുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫുഡിൻ്റെ ഓർഡറിന് വേണ്ടിയായിരുന്നു ആ അതെയതെ അപ്പം ഞാൻ ഒരു അഞ്ച് ബിരിയാണീം അഞ്ച് ചിക്കൻ ബിരിയാണിയും അഞ്ച് പിന്നെ പ്രോൺസ് ബിരിയാണിയുമാണ് ഓഡർ ചെയ്തത് പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് അഞ്ചെണ്ണം പിന്നെ ആപ്പിൾ ജ്യൂസ് അഞ്ചെണ്ണം പിന്നെ ഐസ്ക്രീംസ് ഒക്കെയാണ് ഓഡർ ചെയ്തത് ഐസ്ക്രീം വാനില ഐസ്ക്രീം സ്ട്രൗബെറി ചോക്ളേറ്റ് അങ്ങനെയുള്ള എല്ലാ ഫ്ലേവറും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴാണ് കസിൻസ് വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊക്കെ ഓഡർ ചെയ്തത് അപ്പം ഇപ്പോഴാണ് അവർ വരുന്നില്ലാന്ന് പറഞ്ഞത് അപ്പം അവർ ഒരു അഞ്ചുപേരെ വരുന്നുള്ളുന്നാണ് പറഞ്ഞത് അപ്പം അഞ്ച് ബിരിയാണി മതി അഞ്ച് ചിക്കൻ ബിരിയാണി മാത്രം മതി അഞ്ച് പ്രോൺസ് ബിരിയാണി വേണ്ടാട്ടോ അപ്പം ഐസ്ക്രീം ആണെങ്കിലും വാനില ഫ്ലേവർ ഉള്ളൊരു അഞ്ചെണ്ണം മതി പിന്നെ ജൂസ് ഐറ്റംസ് ഓറഞ്ചും ഒരഞ്ചെണ്ണം അങ്ങനെ മതിട്ടോ കാരണം അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ബാക്കിയുള്ളത് നിങ്ങളൊന്ന് തന്നുവിട്ടാൽ മതിട്ടോ ആ ഒക്കെ ഓക്കെ